കൃഷി കാലാവസ്ഥ വ്യതിയാനത്തെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത് റബ്ബർ ആണെങ്കിലും നെല്ല് ആണെങ്കിലും എന്താണെങ്കിലും കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ചത് വ്യത്യാസമുണ്ടാകും നെല്ലാണെങ്കിൽ ധാരാളം മഴ കിട്ടണം മഴ കിട്ടിയില്ലെങ്കിൽ പോകും പിന്നെ മഴ കൂടിയാലും പോകും റബ്ബർ ആണെങ്കിലും അതേ തണുപ്പുള്ള കാലാവസ്ഥ ആണെങ്കിൽ റബ്ബറിനു നല്ല ഉത്പാദനം കിട്ടും തേങ്ങയാണെങ്കിലും കവുങ്ങാണെങ്കിലും എല്ലാം എന്തെങ്കിലും ഒരു കൃഷി നാശങ്ങളോ വിളവ് നശിച്ചാൽ ഞങ്ങൾ കൃഷി ഓഫീസുമായി ബന്ധപ്പെടും സർക്കാരുമായിട്ട് ബന്ധപ്പെടും അവരർ അത് വന്നു നോക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇനി വാഴയാണെങ്കിൽ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഒത്തിരി വാഴകളുണ്ട് വാഴ വെച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കത് ഒരുമാതിരി കാറ്റടിച്ചോ പ്രകൃതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒക്കെ സംഭവിച്ച് പോകുകയാണെങ്കിൽ അത് ഞങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുഖേന അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ വന്നു നോക്കി അതിനുള്ള എല്ലാം അവർ തരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതൊക്കെ യാദൃശ്ചികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കൃഷി പിന്നെ അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട് കാറ്റു പോയി മഴ ഇങ്ങനെ കാറ്റടിച്ചാൽ വാഴ വെച്ചവരുടെ എല്ലാം വാഴ ഒടിഞ്ഞു പോകും കുറെ കയറൊക്കെ പിടിച്ചു കെട്ടിവെക്കും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് നെല്ലാണെങ്കിലും നല്ല കാലാവസ്ഥ ആണെന്ന് നല്ല നെല്ലുണ്ടാകും മഴ കൂടിയാലും വെള്ളം വന്നു മൂടിയാലും എങ്ങനെയാണെങ്കിലും കൃഷി ഓഫീസുമായിട്ട് അത് ബന്ധപ്പെട്ട് സർക്കാരിനെ അറിയിച്ച സർക്കാർ അതിനു വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തുതരും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഏരിയയിൽ ഒന്നും അങ്ങനെ വലിയ കൃഷിനാശം ഉണ്ടായിട്ടില്ല ഉണ്ടായാലും അതിനുള്ള ഒരു മാർഗ്ഗം ഇവിടെ കൃഷി ഓഫീസിൽ പറഞ്ഞാൽ അവർ ഓഫീസർമ്മാർ വന്നു നോക്കി അതിന്റെ നഷ്ടപരിഹാരം എത്രയാന്ന് വെച്ചാൽ അവർ അത് തരും അങ്ങനെയൊക്കെ ചെയ്തു കൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കൃഷി കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ലാത്ത കാരണം ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഞങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ അത് ചെയ്യാറുണ്ട് അവർ അതിനു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്